ഹലോ മിസ്റ്റർ ജോസഫ് ഹലോ മിസ്റ്റർ ജോസഫ് യാ ഓക്കെ മിസ്റ്റർ ജോസഫ് ഞാന് ഒര് സ്രീലങ്കയിൽ താമസിക്കുന്ന ഒരാളാണ് ഇൻട്ര ഇൻ്റർനെറ്റിൽ നിന്നും തങ്കളുടെ വിവരങ്ങളറിഞ്ഞതിന് ശേഷമാണ് ഞാനിത് വിളിക്കുന്നത് ഞാനിപ്പോൾ നാട്ടിൽ എത്തിയിട്ടുണ്ട് എനിക്ക് റബ്ബറിൻ്റെ സാധ്യതകളെക്കുറിച്ച് കൂടുതലായി ഒന്നറിഞ്ഞാൽ കൊള്ളാമായിരുന്നു റബ്ബറ് മേഖലയുവായി ബന്ധപ്പെട്ടാണ് എൻ്റെയൊര് ബിസിനസ്സ് ബിസിനസ്സ് നടക്കുന്നത് അപ്പോൾ എൻ്റെ പേര് തോമസ് എന്നാണ് തോമസ് തോമസ് തോമസ് ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ആ ആ ഉണ്ട് ആ ആ അതെ ഇപ്പം അതും ആ ആ അതെ അതിനെക്കുറിച്ചുള്ള വിവരങ്ങള് ഞാനറിഞ്ഞിരുന്നു അത്കൊണ്ടാണ് ഞാന് എങ്ങനെ അന്വേഷിച്ചാണ് ആ ആ കേരള കേരളത്തില് തന്നെ ഓക്കെ നാലാം സ്ഥാനമുണ്ട് അതും അതും ശെരിയായ കാര്യമാണ് ഓക്കെ അപ്പം ഇതിനെക്കുറിച്ച് കൂട്തലായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള ഇതിൻ്റെ തൈ എങ്ങനെത്തെയാണ് ഇതിൻ്റെ ഗുണ നിലവാരം കൂടിയ തൈകള് അല്ലെ ഹൈബ്രിഡായിട്ടുള്ള സാധനങ്ങള് അങ്ങനത്തെ ഫസ്ല് സാധനങ്ങൾ കേരളത്തിലെവിടെ വന്നാലും നമുക്ക് ലബിക്കും വിശ്വസനീയമായ രീതിയില് നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് ഒരറിവ് കിട്ടിയ നന്നായിരുന്നു ഇല്ല ലാൻഡ് ആയിട്ടില്ല എനിക്ക് ഇല്ലില്ല എനിക്ക് എൻ്റെ നാട്ടിലിതിനെക്കുറിച്ച് പഠിച്ചിട്ട് പോയി അത് കൂടുതലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് കൂടുതലായി നമുക്ക് അതിനെക്കുറിച്ചുള്ള ആ അ സ്റ്റേ ഞാനൊരു ഒരു ഒരു മാസത്തേയ്ക്കുള്ള ഒരു മാസത്തേയ്ക്കുള്ള താമസിക്കാനുള്ള ഒര് പദ്ധതിയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ഇപ്പം ആ വിവിധ സ്ഥലങ്ങളിലുള്ള ആള്കളുമായി ബന്ധപ്പെട്ട് കൂട്തല് വിവരങ്ങൾ ശേഖരിച്ച് കഴിയുന്ന അത്ര വിവരങ്ങളുമായി മടങ്ങിച്ചെല്ലാനാണ് എൻ്റെയൊര് ഉദ്ദേശം തീർച്ചയായും ആ ആ ആ അതെയതെയതെ അപ്പം കുത്തി വെച്ചാൻ വളരെ അനുകൂലമായ ആ ശെരിക്കും നമ്മൾ ശെരിക്കും നമ്മൾ ശെരിക്കും നമ്മൾ തുടങ്ങിയ തുടങ്ങിയിട്ട് നമുക്ക് ഒരു വിജയകരമായിട്ടെത്തിയിട്ടില്ല ഇന്ത്യ കേരള കേരളത്തിൽ കേരളത്തിൽ ഉണ്ടാകുന്നത് പോണക്കൊള്ളൊര് വളർച്ചാ നെരക്കോ അതിൽ നിന്നൊള്ള ഉൽപാദനമോ നമക്ക് ലഭിക്കുന്നില്ല അത്കൊണ്ടാണ് ഇങ്ങനെയൊര് പദ്ധതിയുമായി നമക്കെറങ്ങേണ്ടി വെരുന്നത് ആ ആ ആ ആ ആ വെളവെടുപ്പിൻ്റെ കാലഘട്ടം കൂടി നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നില്ല ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ആ ആ ഓക്കെ

ആ ആ ഓക്കെ ഓക്കെ ഓക്കെ അ മറ്റൊര് കാര്യം കൂടി എനിക്ക് ചോദിക്കാനുള്ളത് ആ മറ്റൊരു കാര്യം കൂടി എനിക്ക് ചോദിക്കാനുള്ളതായിരുന്നു എനിക്കിതുമായി ബന്ധപ്പെട്ടൊരു നേഴ്സറിയോ അല്ലെങ്കില് ഇതുമായൊര്തെട്ക്ക് തോട്ടമോ പോയി കണ്ടാൽ അതിൻ്റെ കാര്യങ്ങള് നേരിട്ടൊന്നറിയാനുള്ളൊരു സാഹചര്യം കൂടി ഉണ്ടാകുന്ന തങ്കളുടെ സമയം എനിക്കത് വരാൻ ഉപകാരപ്രദവായിരുന്നു ആ ആ ഓക്കെ ഓക്കെ ഓക്കെ താങ്ക്യൂ വെച്ചു താങ്ക്യൂ ഓക്കെ താങ്ക്യൂ